ഇപ്പോൾ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോദി സർക്കാർ കൊണ്ട് വന്ന അതായത് ഒരു പദ്ധതിയാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിലും നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ ഒക്കെ വേണ്ടിയിട്ടാണ് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൊണ്ട് വന്നത് അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക ഇപ്പോൾ പോലും അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർക്കും ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് അവർ ഈ പറമ്പിലും അവിടെയും ഇവിടെയൊക്കെയാണ് പോയിട്ട് രണ്ടിനും ഒന്നൊക്കെ സാധിക്കാറ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുക ശുചിത്വം അതായത് മെയിൻ ആയിട്ട് ഈ നമ്മളിപ്പോൾ നമ്മുടെ മലമൂത്ര വിസർജ്ജനം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുന്നവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഓരോ ആൾക്കാരുടെയും ജീവന് തന്നെ ആപത്താണ് അപ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളും അങ്ങനെയായിരിക്കണം എന്നില്ല നമ്മളിപ്പം നമ്മളുടെ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്കിപ്പോൾ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റുകയായിരിക്കും